ഹലോ ഹലോ അപ്പൂസ് ഹോട്ടൽ ആയിരുന്നു എന്നതായിരുന്നു പറഞ്ഞാട്ടെ ആരാണ് വിളിക്കുന്നത്

ങാ അതെ അതെ അതെ പറഞ്ഞോ പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത് എന്നത്തേ എന്നത്തേക്ക് വേണമെന്നേ എന്നത്തേക്ക് വേണമെന്നേ ങാ ങാ കുഴപ്പമില്ല കുഴപ്പമില്ല ങാ ചെറുകടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നോയമ്പ് കാലമാണല്ലോ അപ്പം മറ്റേ വെജിറ്റേറിയനാണോ വേണ്ടത് എന്താ വേണ്ടത് അപ്പോൾ ബോളിയാണോ വേണ്ടത് എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്

എത്ര എത്ര എണ്ണം വേണം എത്ര പേർക്ക് വേണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതിനുള്ള നൂറ്റമ്പത് ഒരുനൂറ്റമ്പത് കടി ഓക്കെ അതിങ്ങനെ അമ്പത് അമ്പത് അമ്പതായിട്ട് വെച്ചാൽ ഓക്കെ ആണല്ലേ ങാ എത്ര മണിയ്ക്കായിരുന്നു വേണ്ടത് എത്ര മണിയ്ക്കായിരുന്നു വേണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് തരണോ അതോ വണ്ടി ഉണ്ടോ ഇവിടെ വന്നു എടുത്തോളുമോ ങാ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കേ അപ്പോൾ അതിന് നമ്മുടെ ഗ്ലാസ് ഡിസ്പോസിബിള്

ങാ ങാ ഓക്കെ ഓക്കേ ഓക്കേ ങാ വേറൊന്നും കൊണ്ടല്ല നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഏത്തക്കായ്ക്ക് നമ്മൾ ഭയങ്കര വിലയായിപ്പോയി എണ്ണയ്ക്ക ആണെങ്കിലും പത്തിരുന്നൂറ്റിയെഴുപത്തഞ്ച് രൂപായായി ഏത്തയ്ക്കായ്ക്ക് ഒരുകിലോയ്ക്ക് ങാ ഓക്കേ ഓക്കേ അപ്പം ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം കെട്ടോ അപ്പോൾ നാളെ വൈകുന്നേരത്തേയ്ക്ക് ങാ ഓക്കെ ങാ ഓക്കേ നമ്മൾ ഇപ്പോൾ കടയിൽ കൊടുക്കുന്നത് ഏലയ്ക്കായുടെ ഇതൊക്കെ ഇട്ടാണ് കാരണം നമുക്ക് സ്വന്തമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിനെകുറിച്ചു ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമുക്ക് അതുകൊണ്ട് ഓർഡറുകളൊക്കെ വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഏലയ്ക്കായിട്ട് അപ്പം മധുരം ഇടാത്തത് ആർക്കെങ്കിലും ആർക്കേലും വേണ്ടിവരുവോ അങ്ങനെ എന്തേലും വേണോ ഒരു പത്ത് ഇരുപത് ചായ മധുരമിടാത്തത് മതി അല്ലേ ഓക്കേ ഓക്കേ ങാ ഓക്കേ നമ്മൾ ഒരു മൂന്നര ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വച്ചേക്കാം നമ്മൾ ഇപ്പോൾ ഉച്ചകഴിഞ്ഞു ങാ ഏതാണ്ട് നമുക്ക് രണ്ട് രണ്ടര ആകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും നമുക്ക് രണ്ട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നടന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാം കുഴപ്പമില്ല ഓക്കേ ഓക്കേ അപ്പം നമ്മൾ ഇതിനകത്ത് ഉള്ള എന്തോ ഇല്ല കുഴപ്പമില്ല നമ്മൾ ഈ അടുത്ത ആൾക്കാരല്ലേ ഇപ്പോൾ നമുക്കറിയാമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അത് ഓട്ടോയിൽ വരുമ്പം ഓട്ടോയിൽ കൊടുത്തുവിടുക നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉള്ളതാണ് ങാ അതിന് അനുസരിച്ചുള്ള ഗ്ലാസും ഗ്ലാസും ഓക്കേ ഓക്കേ ഓക്കേ ഗ്ലാസും മറ്റേ ഇതും വേണോ ടിഷ്യു പേപ്പറും വേണോ ഓ അവിടെ ഉണ്ടാകുമോ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ ഇത്രയും മതിയല്ലോ ഓക്കേ ഓക്കേ ഓ ഓ ഓക്കേ താങ്ക്യു ഓക്കേ ഓ